ഹലോ കസ്റ്റമർ കെയർ അല്ലേ ആ ഞാൻ അലീഷ എൻ്റെ എൻ്റെ മൊബൈൽ ബില്ല് അടയ്ക്കേണ്ട എക്സ്പ്പയറി ഡേയ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ബിൽ തുക ഞാൻ എൻ്റെ കൈയ്യിൽ ഉണ്ടായിരുന്നൊരു മെസ്സേജ് അത് ഡിലീറ്റായി അപ്പം നമുക്ക് അത് എൻ്റയ്ന്ന് നഷ്ടപ്പെട്ടു പോയി എനിക്ക് അത് അയക്കേണ്ടതിനെ കുറിച്ച് ഓട്ടോമാമേറ്റെഡ് സീൻ വിളിച്ചു എനിക്ക് അത് ഇങ്ങോട്ട് സംസാരിക്കാനാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ അത് സംസാരിച്ചു എനിക്ക് അതൊന്ന് നമ്പർ ബില്ലടയ്ജക്കേണ്ട തുകയും അതിനെ കുറിച്ച് ഐൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒന്നു പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമാവും കാരണം ഞാൻ എനിക്ക് ഇപ്പം എൻ്റെ ഈ ഫോൺ അടയ്ക്കേണ്ടത് ആവുന്നില്ല അതുകൊണ്ട് അപ്പം അതിൻ്റെ ബിൽ തുകയും എത്ര അടയ്ക്കേണ്ടത് എന്നും ഒന്നു കൂടെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു